കോവിഡ് നയന്റീൻ വിനോദസഞ്ചാരത്തെ നല്ല രീതിയിൽ തന്നെയാണ് ബാധിച്ചത് കാരണമെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവിടെയും കോവിഡ് പകർന്നപ്പോൾ പുറത്ത് പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല കാരണം എങ്ങോട്ട് പുറത്തുപോകാൻ ആണെങ്കിലും ചെക്കിങ് പോലീസ് ചെക്കിങ് മാസ്ക് ധരിക്കാതെ പുറത്തു പോകാൻ പറ്റില്ല പിന്നെ സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം പിന്നെ ആ അതുപോലെ തന്നെ എന്തെങ്കിലും പനി ചുമ എന്ന് പറഞ്ഞു പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ചെയ്യണം പനിക്ക് വേണ്ട മരുന്ന് എല്ലാം കഴിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങണം അതുകൊണ്ട് തന്നെ പുറത്തേക്കു പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ നിന്നില്ല കാരണം പുറത്ത് മൊത്തം എല്ലാവടെയും കോവിഡ് ബാധിച്ചതോടെ വീട്ടിൽ തന്നെ കുറെ ഇരുന്നു പുറത്തൊന്നും പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല